ഇപ്പം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പിന്നെ അതായത് പാരൻസിന് അറിയില്ലെങ്കിൽ ഒത്തിരി മാ സാദ്ധ്യതകൾ ഉണ്ട് അവർക്ക് ഓൺലൈനിലായിട്ട് പഠിക്കാം പിന്നെ ട്യൂഷനുകൾ ഓൺലൈനിലുണ്ട് നമുക്ക് കണ്ടു പഠിപ്പിക്കാം അവർക്ക് ഈ സൂം മീറ്റ് പോലെയുള്ള ഇതുവഴി പഠിക്കാൻ പറ്റും ഓൺലൈനിൽ അതേപോലെത്തന്നെ ടി വിയിലൊരു ഒരു ചാനൽ മറ്റൊ ഉള്ളൂ മിക്ക പിള്ളാർക്ക് പഠിക്കാൻ പറ്റുന്നെ പക്ഷെ യൂട്യൂബ് ചാനൽ ഒട്ടനവധികളുണ്ട് യൂട്യൂബ് ചാനൽ വഴി ഓരോ സബ്ജക്ട് ഓരോരോ ടീച്ചേഴ്സ് ഓരോരോ ടീച്ചേഴ്സ് അല്ല പല ടീച്ചേഴ്സ് പലവിധത്തിൽ യൂട്യൂബ് വഴി നമുക്ക് പറഞ്ഞ് തരും നല്ല വ്യക്തമായി സ്ഫുടമായും അവർ അതു തന്നെ ചെറിയ ചെറിയ ഷോർട്ട് കട്ട് വഴിയൊക്കെ അവർ പറഞ്ഞ് തരും അപ്പം എല്ലാ മക്കൾക്കും മനസ്സിലാകും ഏ അതേ അതേ സബ്ജക്ട് തന്നെ വേറെ വേറെ ടീച്ചേഴ്സ് പല രീതിയിൽ എടുക്കും അപ്പം നമുക്ക് രണ്ടുമൂന്ന് ക്ലാസ്സ് കണ്ടാൽത്തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ ആപ്പുകളുണ്ട് പി കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നേ അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല നല്ല മാർഗ്ഗങ്ങളുണ്ട്